ഇരുപത്തിയാറ് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത് പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് രണ്ട് പത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻമ്പത് ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്താറ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്